നമ്മളുടെ നിയമ വ്യവസ്ഥ ഇപ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇരിക്കുന്നത് അത് നേരെ നടപ്പിലാക്കിയാൽ തന്നെ നമ്മുടെ പൗരന്മാർക്ക് വളരെയധികം സമാധാനമായും സുഖമായും ജീവിക്കാൻ പറ്റും ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥ വളരെ കൃത്യമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ വൃന്ദത്തിനോട് വളരെ ശക്തമായി നിർദ്ദേശങ്ങൾ നൽകുകയും പോലീസിംഗ് സംവിധാനം കുറച്ചും കൂടി വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടത്തുകയും ചെയ്താൽ നമ്മൾടെ രാ രാജ്യത്തെ അക്രമങ്ങൾ അക്രമങ്ങൾ കുറയും നിലവിൽ രാജ്യത്ത് അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് അ ഒരു പരിമിതമായ രീതിയിൽ തന്നെ ആണ് നടക്കുന്നത് അത് കുറച്ചും കൂടെ ശക്തമായ പോലീസിംഗിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാവുന്നതേ ഉള്ളൂ കൃത്യമായി സർവ്വേകൾ എല്ലായിടത്തും പോലീസ് ചെക്ക് പോസ്റ്റുകൾ പിന്നെ കൃത്യ സമൂഹങ്ങളില് ബോധവൽക്കരണം ഇതെല്ലാം കൊണ്ട് നമുക്ക് അക്രമങ്ങളെ ഒഴിവാക്കാവുന്നതാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ തടയാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നത് ബോധവൽക്കരണം തന്നെയാണ് സ കുറ്റ കൃത്യം ചെയ്യാൻ സഹായാ സാധ്യതയുള്ള ആൾക്കാരെ ബോധവൽക്കരിക്കുകയും വലിയ കുറ്റങ്ങൾ കുറ്റവാളികളെ പിടിച്ച് തടവിലടയ്ക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ കഴിയുന്നതാണ് പോലീസിംഗ് നല്ല രീതിയിൽ നടപ്പിലാക്കിയാൽ തന്നെ കുറ്റവാളികളെ ഒരുവിധം പിടിക്കാനും കുറേ ക്രമസമാധാനം നിലനിർത്താനും നമുക്ക് സാധിക്കുന്നതാണ്